അപ്പം നമ്മളുടെ പ്രദേശം ഒക്കെ പരമ്പരാഗതമായിട്ട് വരുന്ന കളികൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ക്രിക്കറ്റ് ഫൂട് ബോൾ അങ്ങനത്തെ കളികളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി ഇരുന്നിട്ടാണ് ഗെയിംസ് ഒക്കെ കളിക്കാറ് പിന്നെ വയലുകളിലും കാര്യങ്ങളും നമ്മൾ പോയി കളിക്കലുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക പരമ്പരാഗതമായിട്ട് ഞാൻ കളിച്ചു വരുന്ന കളികൾ അങ്ങനത്തെ ആണ് പിന്നെ നമ്മുടെ അനിയത്തിമാരൊക്കെ ആണെങ്കിൽ അവർ എന്താ പറയുക പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ കളം വരഞ്ഞിട്ട് അക്ക് കളിക്കുക പിന്നെ എന്താ പറയുക സാറ്റ് കളിക്കുക അങ്ങനത്തെ കളികളൊക്കെ അവർ കളിക്കുന്നത് നമ്മൾ ഞാൻ സാധാരണ പരമ്പരാഗതമായിട്ട് ഇവരുടെ കൂടെ അങ്ങനെ കളിച്ച് വരാൻ നമ്മൾ ഇവരുടെ കൂടെ അങ്ങനെ കളിക്കലൊന്നും ഇല്ല നമ്മൾ നമ്മടേതായ കമ്പനി ബേസിൽ ചെക്കന്മാരുടെ കൂടെ ഒക്കെ പോയി ഫുട് ബോൾ ക്രിക്കറ്റ് അങ്ങനത്തെ കളികളൊക്കെ ആണ് ഞാൻ കൂടുതലും കളിച്ചു കൊണ്ട് ഇരുന്നത് അതായത് പണ്ട് തൊട്ടേ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഇവർ കളിക്കുന്നത് കണ്ട് പഠിച്ച് പിന്നെ നമ്മൾ കളിക്കാൻ കൂട്ടുമോ എന്ന് ചോദിച്ച് അവർ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബോൾ പെറുക്കാൻ ഒക്കെ ആയിരുന്നു നിർത്തി കൊണ്ടിരുന്നത് ശേഷം പിന്നെ മെല്ലെ മെല്ലെ അവർ വന്ന് നമ്മളോട് പറഞ്ഞ് നമ്മൾ അതിനകത്ത് കൂടെ കൂടി ഓരോ ലെവൽ പഠിച്ച് പഠിച്ച് പഠിച്ച് ലാസ്റ്റ് നമ്മളെ അവർ കളിക്കാൻ കൂട്ടി നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിയൊക്കെ പഠിച്ച് വന്നായിരുന്നു അപ്പം ഇപ്പം അവിടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടെ തന്നെ നമ്മളും കളിച്ച് നല്ല രീതിക്ക് തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്